എൻ്റെ ചിത്രങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയാന്ന് പറയുമ്പോൾ ഞാൻ വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് വരക്കാറുള്ളത് ഇല്ലെങ്കില് വരയ്ക്കാനായിട്ടു ശ്രമിക്കാറുള്ളത് കാരണം അതിനും മാത്രം ഒരു കഴിവുള്ള ഒരു ചിത്രകാരിയാണ് ഞാൻ എന്ന് ഞാന് വിശ്വസിക്കുന്നില്ല കാരണം എനിക്ക് വളരെ എന്താ പറയാ താഴ്ന്ന തട്ടിലുള്ള ഒരു കഴിവ് മാത്രമേ ഞാനിതുവരെ പ്രകടിപ്പിച്ച് തുടങ്ങിട്ടുള്ളൂ അപ്പം എന്റെ ചിത്രങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ ചെറിയ കഴിവുകളാണ് എന്നുണ്ടെങ്കിലും ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കും സാധിക്കും അതായത് ആര്ക്കാണ് എന്നുണ്ടെങ്കിലും ഏതൊരു വയസില് പെട്ട ആളുകളാണെങ്കിലും ചിലപ്പോൾ ഉള്ളിലുണ്ടായിരിക്കാം പക്ഷേ അവര്ക്കത് പുറമേ കാണിക്കാനുള്ള അല്ലെങ്കില് പുറക്ക് പുറമേ പ്രകടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം ഇല്ലാതെ ഇരുന്നിരിക്കാം അപ്പം അതിനെയെല്ലാം ഒഴിവാക്കാൻ ആയിട്ട് സാധിക്കും കാരണം എനിക്ക് ചെയ്യാന് സാധിക്കുന്ന്ന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തിരിയെങ്കിലും ആ ഒരു കല ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഉറപ്പായിട്ടും സാധിക്കും അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരെക്കൊണ്ട് സ്വാധീനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ചിത്രരചനയില് കൂടെ ഞാൻ മറ്റുള്ളവരെം കൂടി സ്വാധീനിപ്പിക്കാനും അവർക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവുകളിനെ പുറത്തുകൊണ്ടുവരാൻ സഹായിക്കാനും ആണ് ഞാൻ എന്റെ ചെറിയൊരു കലകൊണ്ട് ശ്രമിക്കുന്നത്